എസ്എമ്മിന്റെ സഹായത്തോടെ പ്രദേശത്തെ ആരോഗ്യ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് വളരെ ഉന്നമനം നൽകുന്നുണ്ട് പല ആരോഗ്യപ്രവർത്തകർക്കും നല്ല രീതിയിലുള്ള ട്രെയിനിങ് അതുപോലെ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള ഒരു സഹായം അതുപോലെ പല കാര്യങ്ങളിലും അവിടെ വിസ്ഡം കോഴ്സ് വഴിയും നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആരോഗ്യപരിപാലനം വളരെ മുന്നോട്ടു പോയിരിക്കുന്നു ഈ ഒരു അത് കാരണം എല്ലാവർക്കും അതുകൊണ്ടുതന്നെ ഇങ്ങനെ ഒരു കാര്യത്തെ നേരിടണം അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ പരിശീലങ്ങളും ഇതുവഴി നൽകിയിട്ടുള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞു ഇതുവഴി ആരോഗ്യ പ്രവർത്തന കേന്ദ്രങ്ങളിൽ നിൽക്കുന്നവരെല്ലാം ട്രെയിൻഡ് ആളുകൾ ആവുകയും ഇത് സംഭവത്തെയും നേരിടാൻ അവർ പ്രാപ്തരാവുകയും ചെയ്തിട്ടുണ്ട് പല മരുന്നുകളുടെയും ഉള്ള ഒരു അറിവ് ഇവരെ ഇത് ഒരുപാട് സഹായകരമായിട്ടു മാറിയിട്ടുണ്ട് ഇത് ഒരുപാട് സഹായിക്കുകയും ഇതിന് ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്യുന്നുണ്ട്

ഇപ്പോൾ കൊറോണ പോലുള്ള മഹാമാരികളിൽ നിന്ന് സഹായരക്ഷ നേടാന് ഇവരുടെ പ്രവർത്തനങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവരുടെ കാര്യങ്ങളെല്ലാം ഇതുപോലെ നല്ല രീതിയിൽ തന്നെ ഒരു സമൂഹത്തിലൊരു ഇമ്പാക്ട് ഉണ്ടാക്കിയത് ആയിട്ട് കണ്ടിട്ടുണ്ട്